ഹലോ ആമസോൺ ഓൺലൈൻ ഷോപ്പിങ്ങ് കസ്റ്റമർ കെയറണോ ഞാൻ വെർബീനയാണ് ഞാനൊരു ഓൺലൈനായിട്ട് ഒരു സ്മാർട്ട്ഫോൺ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഓൺലൈൻ ഷോപ്പ് ചെയ്തത് ഡേറ്റ് വന്നിട്ട് ജൂലൈ ഒരു അഞ്ചാം തീയ്യതിയാണ് അപ്പോഴെനിക്ക് അറൈവിങ്ങ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് ഒരു ജൂലൈ പത്തൊക്കെയാണ് അപ്പോൾ അന്ന് ഓഡർ നമ്മളെ ഓഡറ് ഓൺലൈൻ ഷോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡേയ്റ്റ് ഉണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോഴത് എവിടെ എത്തിയെന്നോ ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴത് ഈ പത്തിന് തന്നെ എനിക്ക് കിട്ടുമോ ഇപ്പം അത് ഒന്ന് കാണിക്കുന്നു ഡെസ്പാച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളു പക്ഷേ അതെന്തോ അതിൻ്റെ ഫയല് പെൻ്റിങ്ങാണെന്നാണ് കാണിച്ചിരിക്കുന്നത് ഫെയിൽഡാണെന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോഴത് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യം അതെനിക്കൊന്ന് അറിയാൻ പറ്റുമോ എനിക്ക് ആ പത്താം തീയ്യതി തന്നെ അത് കിട്ടുമോ അത് ഞാൻ ഇനി അത് ക്യാൻസൽ ചെയ്യണോ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന്

അതെ അതെ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കറക്റ്റ് സ്ഥലം ചിറവക്കിൽ എന്നു പറയും ഞാൻ അത് എല്ലാം നമ്മൾ പിന്നെ അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ടല്ലോ പത്താം തീയ്യതി തന്നെ കിട്ടുമോ പത്താം തീയ്യതി രാത്രി ആയിരിക്കൂം അല്ലേ ആ ഓഹ് ഓഹ് ആ അപ്പോഴത് പ്രതീക്ഷിക്കാമല്ലോ നമ്മൾക്കത് കിട്ടുമെന്ന് അല്ലെങ്കിൽ എനിക്കത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ആപ്പ് വഴി ഓർഡർ ചെയ്യാനാണ്

ആ മെസ്സേജ് എന്തെങ്കിലും വരുമോ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു